ആധുനിക സാങ്കേതിവിദ്യ ബാങ്കിംഗ് സേവനം വളരെ വളരെ എളുപ്പമായിട്ടുണ്ട് യു പി ഐ യൂണിവേഴ്സൽ പേമെൻറ്റ് സിസ്റ്റം ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തത് വളരെ ജനകീയമായിരിക്കുന്നു ലോകത്തിൻ്റെ തന്നെ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കപ്പെട്ടൊരു സിസ്റ്റമാണ് ഓരോരുത്തരുടെയും ഇപ്പോൾ മൊബൈൽ ഫോണീന്നും ഒക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു മറ്റേത് ബാങ്കിൽ പോയി സാമ്പത്തിക സ്ഥാപനങ്ങളിൽ പോയോ പിന്നെ അതിൻ്റെ മാനുവൽ ആയിട്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുളളൂ ഇപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഉപകരണമായ മൊബൈൽ ഫോണീന്ന് തന്നെ നേരിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എപ്പോഴും എപ്പോഴും ഏത് സമയവും ചെയ്യാവുന്നതാണ് ആരുടെയും ഒരു ഓഫീസ് തുറന്നതിൻറ്റേ അവേഴ്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല യു പി ഐ ലോക വ്യാപകമായിട്ട് നല്ല രീതിയിൽ നടക്കുന്നു അത് ലോകത്തിൻ്റെ തന്നെ ഒരു മാതൃകയായി വന്നിരിക്കുന്നു ഇന്ത്യയുടെ യു പി ഐ സിസ്റ്റം അതിനുമുമ്പത്തെ പിന്നെ ഇതിൽ ഐ എഫ് എസും ഐ എഫ് എസ് കോഡും വേറെ പല പല ഐ എഫ് എസ് ഫണ്ട് ട്രാൻസ്ഫർ രണ്ട് മൂന്ന് സിസ്റ്റം അതിൽ നടത്തുന്നത് അതിൻ്റെ മറ്റുള്ള സാങ്കേതികവശങ്ങൾ കൂടുതൽ എനിക്ക് അറിവില്ല പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെ വളരെ എളുപ്പമാണ് എപ്പോളും